ഹലോ അ അമൽജ്യോതി കോളേജിലെ പ്രിൻസിപ്പളാണോ ആ അതെ ഞാൻ ഇവിടെ ഇടുക്കിന്ന് ഷാജി ആയിരുന്നു ഞാൻ വിളിച്ചത് നമ്മുടെ കൊച്ചിന് എത്രയാണ് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒക്കെ കോളേജിലുണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു കൊച്ചിൻ്റെ പേര് സോബി ആ അവൻ ബികോമാണ് ആ അത് ഈ അക്കൗണ്ടിങ്ങ് സംബന്ധമായ കൂടുതൽ കാര്യങ്ങളൊക്കെ കി കിട്ടുമോന്നാണ് ഉദ്ദേശിക്കുന്നത് അ രണ്ടാം വർഷം അവൻ ഏത് കൂടുതൽ ഒരു പഠന സൗകര്യം കിട്ടുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോന്ന് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്

അപ്പം സാറേ അവിടെ ഈ കൗൺസിലിങ്ങൊക്കെ കൊടുക്കാറുണ്ടോ മ് മ് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഉള്ള ഇത് കൊടുക്കാറുണ്ടോ

ഇൻറ്റെൺഷിപ്പ് കൊടുക്കാറുണ്ടോ ഇൻറ്റെൺഷിപ്പ്

മ് സാറവിട ഈ കൗണ്സിലിങ്ങൊക്കെ നടത്താനായിട്ട് പിള്ളേരൊക്കെ വരുമ്പോഴേ അവർക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാറൊക്കെ ഉണ്ടോ അത്കൊണ്ട് വലിയ ഗുണം ഗുണം ഉണ്ടാകാറുണ്ടോ മാറ്റം ഉണ്ട് സാറെ അവിടെ കോളേജി പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെ പോയിട്ട് ഉണ്ടോ പോയിട്ടുണ്ടല്ലേ അപ്പം നല്ല നിലവാരം പുലർത്തുന്ന ഒരു കോളേജാണ് ആ എന്നാൽ ഓക്കെ സർ ഓക്കെ ഓക്കെ ആ